ഇനി ഇപ്പം മഴപിടിച്ചാൽ പിന്നെ കൂടുതൽ മീൻപിടിക്കാനുള്ള ആൾക്കാരു പോകുന്നതായി കാണാം എൻ്റെ വീടിൻ്റെ അടുത്തുതന്നെ ഒരു പുഴയുണ്ട് വലിയൊരു പുഴയാണ് അവിടെ പല സ്ഥലത്തുനിന്ന് ആൾക്കാരു വരാറുണ്ട് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ചൂണ്ടയിട്ടും വലയിട്ടും ഒക്കെ മീൻ പിടിക്കുന്നുണ്ട് ഇപ്പോൾ ചൂണ്ട ഇടുവാണെങ്കിൽ തന്നെ ചൂണ്ടയുടെ അറ്റത്ത് മണ്ണിര കോർക്കും അല്ലെങ്കിൽ ചാണകപ്പുഴുവും അങ്ങനെ എന്തേലുമൊക്കെ പുഴു ചേർക്കും പിന്നെ അല്ലെങ്കിൽ തീറ്റ പോലെത്തെ സംഭവങ്ങളൊക്കെ വെക്കും ആട്ടപ്പൊടി അങ്ങനെത്തെ എസ്സെൻസ് തവിട് അങ്ങനെത്തെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ചേർത്ത് അവരു തീറ്റയൊക്കെ ഉണ്ടാക്കി ഉരുട്ടിവെച്ചാണ് ചൂണ്ടയിൽ കൊളുത്തി ഇങ്ങനെ ഇടുന്നത് അത് തിന്നാൻ വേണ്ടി മീനുകളെല്ലാം വരികയും അതിനകത്തു വലിയ മീൻ മീനുകൾ കുടുങ്ങുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ വലയിടുവാനെങ്കിൽ തന്നെ വീശുവലയാണ് ഉപയോഗിക്കുന്നത് വീശുവലയിട്ടിട്ട് വീശിപ്പിടിക്കുന്നു അതിനെ കോരുമ്പോൾ തന്നെ അതിനകത്തു ധാരാളം കുഞ്ഞിതും വലുതുമായ ധാരാളം മീനുകളൊക്കെ കിട്ടുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് വളരേ നല്ലതെന്നുവെച്ചാല് വീശുവല തന്നെയായിരിക്കും കാരണം അതിനകത്ത് കുറെ മീൻ കിട്ടുമല്ലോ ചൂണ്ടയിടുവാണെങ്കിൽ ഓരോ മീനല്ലേ കിട്ടുകയുള്ളു ഓരോ മീനാണേലും ചിലപ്പോൾ അത് വലിയ മീനുകളൊക്കെയായിരിക്കും